പാരമ്പര്യ കൃഷി രീതിയെന്ന് പറഞ്ഞാൾ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയ്ക്കും മഴ നോക്കി പിന്നെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠി നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം നെല്ല് കൃഷി ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നെല്ലിന് പുറുകെ പിന്നെ കണ്ടിന്യൂസായിട്ട് നെല്ല് ചെയ്യത്തില്ല വേറെ ഏതെങ്കിലും കൃഷി ചേന വാഴ അങ്ങനെ ഫുൾ കൃഷിയാണ് ചെയ്തു വച്ചിരിക്കുന്നത് അത് നമുക്ക് പിന്നൊരു വ്യായാമം കൂടി ആയിരുന്നു വ്യായാമം കൂടി ആയിരുന്നു പിന്നെ നമുക്കത് ഉപജീവനമാർഗ്ഗം ആയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലും ജൈവളങ്ങളാണ് നമ്മൾ ഉപയോഗച്ചുകൊണ്ടിരുന്നത് ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായ കറി സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽത്തന്നെ നമ്മളുല്പാദിപ്പിക്കുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത് മാത്രമല്ല ഇപ്പോൽ മഴ കൂടുതലുള്ള സമയങ്ങളിൽ അതിന് അനുയോജ്യമായ കൃഷികളാണ് ചെയ്തു വച്ചിരുന്നത് കുറയുന്ന സമയം വെയിൽ കൂടുതലുള്ള സമയങ്ങൾ അതിന് അനുസരിച്ച് പഷേ ഇപ്പോഴത്തെ കാലഘട്ടം എന്നു പറഞ്ഞാൽ മഴ കൂടുതലായാലും വെയിൽ കൂടുതലായാലും നമുക്ക് പ്രശ്നമില്ല അത് അനുസരിച്ചിട്ടുള്ള നൂതനമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചപ്പം മഴ കൂടുതലുള്ള അതിനനുസരിച്ച് ഷീറ്റൊക്കെ കെട്ടി വെയിൽ കൂടുതലാണെങ്കിൽ ഗ്രീൻ നെറ്റുപോലത്തെ നെറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് അതെല്ലാം കെട്ടി അങ്ങനെ ഉപയോഗിച്ച് ചെടികളെയൊക്കെ സംരക്ഷിച്ചിട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്ന രീതിയുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ പണ്ട് മനുഷ്യന്മാർ ചെയ്തിരുന്ന എന്നു വച്ചാൽ നിലമൊക്കെ ഉഴുവാനായിട്ട് മനുഷ്യന്മാർ കാളയും കലപ്പയൊക്കെ ഉപയോഗിച്ച് ചെയ്തിരുന്നത് ഇപ്പോഴതിന് ട്രാക്റ്ററ് അങ്ങനെ പുതിയ പുതിയ മെഷീൻസെല്ലാം വന്നിട്ടുണ്ട് നെൽക്കൃഷിയാണെങ്കിൽ കൂടിയും പണ്ട് നെല്ല് വിതയ്ക്കുക ഞാർ നടുക കൊയ്യുക ഇതെല്ലാം മനുഷ്യന്മാരാണ് ചെയ്തു വച്ചത് ഇപ്പോഴതിനെല്ലാത്തിനും യന്ത്രങ്ങൾ വന്നു മാത്രമല്ല മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയുമ്പോൾ അതനുസരിച്ചുള്ള രാസവളങ്ങളും കൂടി ചേർക്കാൻ തുടങ്ങി അപ്പോൾ ഇതുകൊണ്ട് ഉൽപാദനം കൂടുന്നുണ്ട് പക്ഷെ എന്നാൽ ഉൽപാദനം കൂടും പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങൾ വരുന്നു രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം ക്യാൻസറ് പോലുള്ള അസുഖങ്ങളു ടെ ഒക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ കൃഷി ഭൂമി നികത്തി കെട്ടിടങ്ങൾ വ്യവസായ ശാലകൾ പിന്നെ ജാളൂർ ജനസംഖ്യ കൂടി കഴിയുമ്പോത്തന്നെ വീടുകൾ ഇങ്ങനെ നിൾക്കുമ്പോഴേ ഞാൻ കൃഷി സ്ഥലം പൊതുവെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾത്തന്നെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ടെറസിൽ ഗ്രോ ബാഗ് പോലുള്ള അങ്ങനെ ഉള്ളതിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളത്തിൽ വളരുന്ന വെള്ളത്തിൽ ചില പോഷകങ്ങൾ ലായനികളൊക്കെ കലർത്തിയിട്ട് അതിൽ ചെടികൾ വളർത്തുക അപ്പം അതിന് മണ്ണൊട്ടും തന്നെ ആവശ്യമില്ല പിന്നെ അക്കോപോണിക്സ അങ്ങനെയൊരു കൃഷിരീതി ഉണ്ടെന്ന് വച്ചാൽ മത്സ്യങ്ങളും മത്സ്യം വളർത്തുകയും ആ വെള്ളം ഉപയോഗിച്ച് ചെടികൾക്ക് നനച്ചിട്ട് അതുകൊണ്ട് ചെടികൾ വളരുന്നതുകൊണ്ട് അപ്പോൾ മത്സ്യത്തിന് മത്സ്യം എന്നുള്ള ആ വെള്ളം തന്നെ വള്ളിച്ചെടികൾക്ക് വളക്കൂറുള്ളതാണ് ചെടികൾ ആ വെള്ളത്തിൽ നിൽക്കുന്നു വെള്ളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പാരമ്പര്യ കൃഷിരീതി എപ്പോഴും പാരമ്പര്യമായിട്ടും കൃഷിരീതി തന്നെയാണ് എപ്പോഴും നല്ലത് പിന്നതിന് വ്യായാമം മനുഷ്യൻ വർക്ക് കൂടുതലാവശ്യമാണ്